ആരോഗ്യ രംഗത്ത് ഒട്ടും പിന്നോക്കം നിൽക്കാത്ത സംസ്ഥാനമാണ് കേരളം പിന്നെ എന്തു കൊണ്ടാണ് കേരളത്തിൽ ജീവിത ശൈലി രോഗങ്ങൾ പിടി പെടുന്നാളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ച് കൊണ്ടിരിക്കുന്നത് ആരോഗ്യ രംഗത്ത് ഒട്ടും പിന്നോക്കം നിൽക്കാത്ത സംസ്ഥാനമാണ് കേരളം കേരള ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് പിടിപെടുന്നുണ്ട് കാരണം കൂടുതലും ആൾക്കാരുടെ ജീവിത ശൈലിയും അതുപോലെ തന്നെ ന്യൂട്രിഷ്യൻ ഫുഡ് അതായത് ബാ പോഷകാഹാരക്കുറവും ടുബാക്കോസിൻ്റെ യൂസസ് അതുപോലെതന്നെ പുകയില ഉത്പ്പന്നങ്ങളും അതുപോലെതന്നെ മദ്യപാനവുമാണ് ഒ ഒരു തരത്തിലുള്ള

ജീവിതശൈലി കൂടെ ശൈലി രോഗങ്ങൾ കൂടാനുള്ള കാരണം അതിലൊന്നരക്കോടി ജനങ്ങൾ എട്ട് പോയിൻറ്റ് ഒന്ന് നാലു ശതമാനം ആളുകളും ഇന്ന് ഇതിനാണ് ഇതിനൊക്കെ ടുബാക്കോസിനും ആൽക്കഹോളിനും ഒക്കെ അടി അടിമപ്പെട്ടിരിക്കാണ് ആർദ്രം ഹെൽത്ത് കെയർ ഹെൽത്ത് അവർ സ്ക്രീൻ ചെയ്തിരിക്കുന്ന പ്രകാരം മുപ്പത്തൊന്നു ശതമാനം ഹൈപ്പർ ടെൻഷൻ മൂലവും രണ്ടെ പോയിൻറ്റ് ഏഴ് ശതമാനം ഷുഗർ അതായത് ഡയബറ്റിക്കായിട്ടാണ് ആൾക്കാർ മരിച്ചിരിക്കുന്നത് പിന്നെ ആൾക്കാരുടെ ഫിസിക്കലായുള്ള ആക്ടിവിറ്റീസ് കുറയും പണ്ടൊക്കെ ആൾക്കാരെന്നു പറഞ്ഞാൽ കൃഷി കാര്യങ്ങൾ കൂടുതലാണ് ഇന്നത്തെ ആളുകൾ കമ്പ്യൂട്ടറലൈസ്ഡ് ജോലികളാണ് കൂടുതലും അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് ധാരാളം വരണുണ്ട് അതായത് മുലയൂട്ടുന്ന അമ്മമാർ കുട്ടികൾ കൗമാരക്കാർ ഇവരിലാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രതിപാദിക്കുന്നത് പോഷകാഹാരക്കുറവ് കൂടുതലും അതിനു കാരണം വെയ്ക്കുന്നത് തൊയിലില്ലായ്മയാണ് അതുപോലെ തന്നെ ട്രൈബ്സ് അവർക്ക് കാട്ടിലുള്ളവർക്കൊന്നും അധികം പോഷഹാരങ്ങൾ ലഭിക്കാൻ ലഭ്യത കുറവാണ് അതുപോലെതന്നെ ഇന്നും ഒമ്പത് ശതമാനം കുട്ടികളും കേരളത്തിലുള്ളത് അണ്ടർ വെയ്റ്റാണ് അതുപോലതന്നെ അഞ്ച് പോയിൻറ്റ് ആറു ശതമാനം ആളുകളും ന്യൂട്രിഷ്യൻസ് കിട്ടാത്ത അതായത് പോഷകാഹാരം കിട്ടാത്തവരാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത ശൈലി ഫാസ്റ്റ് ഫുഡ്ഡിനെയാണ് കൂടുതലാൾക്കാരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്നത് കാരണം അവർ കൂടുതലും ഫാസ്റ്റ് ഫുഡ് കഴിക്കും തോറും അവരുടെ ആരോഗ്യം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമൂലം ഓരോ അസുഖങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും അതുപോലതന്നെ ടുബാക്കോസും ആൽക്കഹോളും അതായത് പുകയില ഉത്പന്നങ്ങൾ നമ്മളധികം യൂസ് ചെയ്യുക ഇന്ന് ഇന്ത്യയിൽ തന്നെ ആറെ പോയിൻറ്റ് ഒൻപത് ശതമാനം അതിൽ അതിൽ അതും ലോകമെമ്പാടും എടുത്താലുള്ള കണക്ക് അതിൽ പന്ത്രണ്ട് പോയിൻറ്റ് പന്ത്രണ്ട് ശതമാനം ആണുങ്ങളും ഒന്നേ പോയിൻറ്റ് രണ്ടു ശതമാനം പെണ്ണുങ്ങളും ഈ ഡ്രഗ്സിന് അടിമയാണ് അതായത് സ്മോക്കിങ് സ്മോക്കിങ് നിരോധനമാണ് നിരോധിച്ചിരിക്കുകയാണ് പൊതു ഇടങ്ങളിൽ എന്നാലും അതിൻ്റെ വർദ്ധനവ് കൂടുതലാണ് പതിനഞ്ച് വയസ്സിനു മുകളിലുള്ള അ ആൾക്കാർ ഇഷ്ടം പോലെയാണ് ഇതിനഡിക്റ്റായിട്ടുള്ളത് അതായത് സിഗരറ്റും അതുപോലെ തന്നെ മറ്റു ഉത്പന്നങ്ങളും പുകയില ഉത്പന്നങ്ങളും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആൾക്കഹോൾക്കും യൂസ് ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് അതുമൂലം ഈ ഡ്രിങ്ക്സ് അതായത് ആൽക്കഹോളിക്കായിട്ട് മദ്യപാനം കൂടുന്നവറിൽ കൂടുതലും ഈ ലിവർ സിറോസിസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഹൈപ്പർ ടെൻഷൻ അതുപോലെ തന്നെ ക്യാൻസർ എംപസീമ ഇങ്ങനൊള്ള അസുഖങ്ങളൊക്കെ വെരും സിഗർട്ട് വലി മൂലം അതുപോലന്നെ മദ്യപിക്കാൻ മദ്യപിക്കുന്നവർക്ക് അവർ ദിനം പ്രതി അവരുടെ ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് അല്ല സിഗ അതുപോലെ സിഗററ്റ് വലിക്കുന്നവർക്കായാലും പുകയില ഉത്പ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നവർക്കായാലും ക്യാൻസർ വരാനുള്ള സാദ്ധ്യത വളരെ അധികം കൂടുതലാണ് ഇന്നു നമ്മുടെ ആരോഗ്യ രംഗത്ത് അസുഖങ്ങളിൽ അതാത് കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ അതു നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതാണ് ശ്വാസകോശം യ ശ്വസനി നങ്ങളിലൂടെയും അതെപോലെ തന്നെ നമുക്ക് പനിയായും ഒക്കെ വന്നു പോകുന്നതാണ് കോവിഡ് നയൻറ്റീൻ ഈ കോവിഡ് നയൻറ്റീൻ മൂലവും ആളുകളിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതു വന്നു മരിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്ത്യയിൽ അതിൽ ഒരു നല്ലൊരു ശതമാനം കേരളത്തിലുണ്ട് മരണം അതു പോലെ തന്നെ അതു കോവിഡ് നയൻറ്റീൻ ബാധിച്ച ആളുകളിൽ ഇന്നും ശ്വാസംമുട്ട് അതുപോലെ തന്നെ അവർക്ക് അതിൻറ്റേതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട് കോവിഡ് നയൻറ്റീൻ അത്യാവശ്യം നല്ല രീതിയിൽത്തന്നെ ആരോഗ്യ രംഗ് രംഗത്ത് നല്ലൊരു നാശം വിതച്ച ഒരു ഡിസീസ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞപ്പ് മഞ്ഞപ്പിത്തം മഴക്കാലം തുടങ്ങിയാൽ ഡെങ്കിയും മാ അങ്ങനെയുള്ള കാര്യങ്ങൾ വെള്ളം കന്നി ഓടകൾ കേരളത്തിലുള്ള ഊട ഓടകൾ നിറയുന്ന കൊതുകുകൾ മൂലം ഡെങ്കിപ്പനി മലേറിയ അങ്ങനെയുള്ള അസുഖങ്ങളും നിരവധിയാണ് വൃത്തിഹീനതയും കൊണ്ടും വരുന്ന അസുഖങ്ങളുമുണ്ട് ആരോഗ്യ രംഗ കേരളത്തിൽ മഞ്ഞപ്പിത്തം വെൾ ഇപ്പോൾ വളരെ അധികം വ്യാപിച്ചിരിക്കുകയാണ് മലിനമായ വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മഞ്ഞപ്പിത്തം മ ആളുകളിലേക്കെത്തുന്നു അതുപോലെ തന്നെ ജീവിത ശൈലികൾ എക്സസൈസ് കുറവു ഫാറ്റി ഫുഡ്ഡുകൾ ഒരുപാട് കഴിക്കുക കൊളസ്ട്രോൾ നോൺ കാർബണെയ്റ്റായിട്ടുള്ളതും കാർബണെയ്റ്റായിട്ടുള്ള ഫുഡ്ഡുകൾ കഴിക്കുക ഇതൊക്കെ കൂടുതലും ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ ഡയബറ്റിക്കാകാനും ഉള്ള സാദ്ധ്യത വളരെ അധികം കൂടുതലാണ് ഇതുമൂലം ധാരാളം ആളുകൾ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യായാമക്കുറവ് പണ്ടുള്ള ആളുകളെപ്പോലെ ഇപ്പം ആരും കൃഷി ചെയ്യാൻ തന്നെ മുന്നോട്ടു വരുന്നില്ല എല്ലാവരും അവരവർ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കേരളം മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാൻ ഇപ്പം മുന്നിലാണ് നിൽക്കുന്നത് മുന്നിലത്തെ ഒരു സ്ഥാനം തന്നെയാണ് കാരണം മാ തമ് അയൽ രാജ്യമായ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ളവർ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും കൃഷി പച്ചക്കറി ഉത്പ്പന്നങ്ങൾ കേരളത്തിലേക്കെത്തിക്കുന്നു അതിൽ അടിക്കുന്ന വിഷങ്ങൾ പച്ചക്കറികൾ കേടാകാതിരിക്കാനുള്ള ചേർക്കുന്ന മായങ്ങൾ അതും ഒരു തരത്തിൽ ആരോ ഒരു പരിധി തന്നല്ല നല്ല രീതിയിൽത്തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നു കുട്ടികളിലാണത് ഏറ്റവും കൂടുതൽ എഫ്ക്റ്റ് ചെയ്യുക മുതിർന്നവരിലുമുണ്ട് അതുപോലെ തന്നെ അത് ഭക്ഷണ രീതികളും മായം ചേർത്ത ഭക്ഷണമാണ് ഇന്നെവിടെയും ലഭിക്കുക നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തു ഉണ്ടാക്കുന്നത് പോലെയല്ല മറ്റുള്ളവരിൽ നിന്നും കടകളിൽ നിന്നും വാങ്ങിക്കുന്ന പച്ചക്കറികൾ അരിയിൽ പോലും മായമാണ് ഇന്നത്തെക്കാലത്ത് വിശ്വസിച്ച് ഒരു ഫു ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇപ്പം അതിനിടയിലാണ് ഫാസ്റ്റ് ഫുഡ് ആൾക്കാർ കൂടുതലായി ആശ്രയിക്കുന്നത് ഫാസ്റ്റ് ഫുഡ്ഡിൽ തന്നെയും ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഡ്രിങ്ക്സ് കൊക്ക കോള പെപ്സി ചൂട് കയി ഇപ്പോൾ നമുക്കടുത്താണ് അടുത്തു തന്നെ വേനലാണ് നമ്മളിൽ നിന്നും വേനലായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുളള ഡ്രിങ്ക്സും കാര്യങ്ങളും കൊക്ക കോള കാര്യങ്ങളുമെല്ലാം ഇതുപോലെ ആളുകൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും കുടിക്കുകയും അത് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് കുറെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ടായിട്ടുണ്ട്